ഇന്ന് ഇന്നത്തെ കാലത്ത് മനുഷ്യരെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഒരു ഘടകമാണ് സൗന്ദര്യം ആ സൗന്ദര്യം ലഭിക്കാൻ വേണ്ടി അവർ ഏത് പ്രോഡക്റ്റും വാങ്ങി ഉപയോഗിക്കും ഈ അവർ അതിനുവേണ്ടീട്ടുള്ള പരസ്യങ്ങൾ വേണം ആ പ്രോഡക്റ്റ് ഉല്പാദിപ്പിക്കുന്ന കമ്പനികൾ ഇറക്കുന്നതും അത് അതിനെ ഫലം ലഭിക്കുമോ ഇല്ലയോന്ന് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഉപയോഗിച്ചാൽ ഉ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഫലം ലഭിച്ചു എന്ന് പറയുന്ന പരസ്യങ്ങളാണ് കൂടുതലും അവർ നമുക്കായിട്ട് നൽകുന്നത് ആ പരസ്യത്തിൽ നമ്മൾ വീണു പോയിട്ട് നമ്മളാ ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയും അതിൻ്റെ തക്തഭലങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടാകുന്നവരായിരിക്കും കൂടൂതൽ കൂടുതലും അത് ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ അവരെപ്പോഴും ആ പരസ്യം ലെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയകളിൽ കൂടി തന്നെയാണ് സോഷ്യൽ മീഡിയ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഈ മീഡിയ തന്നെയാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ് ഇവർ ഇവരുടെ പരസ്യങ്ങളും അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു മാധ്യമം